എൻ്റെ അഞ്ചാം ക്ലാസ്സ് തൊട്ട് പത്താം ക്ലാസ്സ് വരെ ഞാനൊരു മാനേജ്മെൻ്റ് സ്കൂളിലാണ് പഠിച്ചത് അവിടെ ഞങ്ങളെ സംഗീത എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് പടം വരയ്ക്കാനായിട്ട് പഠിപ്പിച്ചത് ടീച്ചർ നല്ല നല്ല പടങ്ങളൊക്കെ വരയ്ക്കുകയും നമുക്ക് അതിനുള്ള ബുക്കുകൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ബുക്കിലാണ് പടം വരച്ചുകൊണ്ടിരുന്നത് പടം വരച്ച് നല്ലതായിട്ട് കളറ് ചെയ്യുന്നവരേയും മിസ്സ് ടീച്ചറ് എപ്പോഴും അനുമോദിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഒരു ബുക്കിൽ നല്ല ഒരു ചിത്രം വരച്ചു പ്രകൃതി രമണീയമായ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ചിത്രം വരച്ചു അപ്പം നല്ലതായിട്ട് പെയിൻ്റൊക്കെ ചെയ്തു പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചറ് വളരെയധികം എന്നെ അനുമോദിച്ചു എന്നാണ് വച്ചാൽ നല്ല പടമാണ് നല്ല നല്ല ഭംഗിയുണ്ട് കൂടുതൽ വരയ്ക്കാനൊക്കെ പഠിക്കാനൊക്കെ പോണം പത്താം ക്ലാസ്സ് കഴിഞ്ഞാലും വരയുടെ ആ ഒരു രീതികളൊന്നും കളയരുത് നല്ല രീതിയിൽ വരയ്ക്കണം എന്നക്കെ ടീച്ചറ് പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചുകൂടിയൊക്കെ പ്ലസ്ടു ലെവലൊക്കെ കിട്ടിയാൽ കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു അങ്ങനെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ വര കൊണ്ടുപോകുന്നുണ്ട് അവരെ അന്ന് നമ്മൾ നമ്മൾ ഇപ്പോഴും

ഓർക്കുന്നത് ടീച്ചർമാരെ നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രം നമ്മൾ നല്ല രീതിയിൽ ഉയർന്ന് വരത്തുള്ളു പിന്നെ വീട്ടിൽ നിന്നുള്ള ഒരു നല്ല സൈഡും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് പിന്നെ വരക്കാനായിട്ട് സാധിക്കും ചിത്രരചന വിദ്യാഭ്യാസം വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ എങ്കിലും പ്ലസ്ടു ലെവലൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ചുകൂടി കുറഞ്ഞ് പോയിയെങ്കിൽ നമ്മളെ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനത് കളഞ്ഞില്ല അത് നന്നായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് പടം വരച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പടം വരയ്ക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് സ്വന്തമായിട്ട് കാർഡ് ഉണ്ടാക്കാനും കാർഡിൽ അതിനകത്തുള്ള പടങ്ങൾ വരയ്ക്കുന്ന എല്ലായിതും സ്വതമേ കൈകൊണ്ട് തന്നെയാന്ന് അപ്പം കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ ചിത്രരചനയ്ക്കുള്ള പ്രോത്സാഹനം കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒര് അഭിപ്രായം